എനിക്ക് ബൈക്കിൽ ഹിമാലയത്തിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കാരണം കാരണം ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഭംഗിയുള്ള ഒരുപാട് കാരണം സിനിമേലൊക്കെ നമ്മൾ ഈ ഈ ഹിമാലയത്തിലെ ഓരോ ഭാഗങ്ങളും അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളും വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ ഒരുപാട് കണ്ടിട്ട്ണ്ട് പക്ഷേ അപ്പോൾ അപ്പം അത് അപ്പം ഉള്ള ആഗ്രഹം ആണ് മനസ്സിൽ കാരണം അതൊന്ന് പോയി കാണണം എന്നും അതും ബൈക്കിൽ ബൈക്കിലാണല്ലോ സാധാരണ എല്ലാവരും ലോങ്ങ് ട്രിപ്പൊക്കെ അങ്ങനെ ഹിമാലയത്തിലോട്ടൊക്കെ റൈഡ് പോകണത് അപ്പോൾ അങ്ങനെ പോകുന്ന അങ്ങനെ പോകണം എന്ന് കുറെ നാളത്തെ ആഗ്രഹം ആണ് അപ്പം ഈ അടുത്ത് പോകണം എന്ന് വിചാരിക്കുന്നു അവിടുത്തെ സ്ഥലത്തിൻ്റെ ആ ഒരു അവിടെ കുറെ ഋഷിമാരും അങ്ങനേക്കാണല്ലോ നമ്മൾ സിനിമേലൊക്കെ കണ്ടിട്ടുള്ളത് മഞ്ഞ് മൂടീട്ടുള്ള ആ സ്ഥലങ്ങളും തടാകങ്ങളും അമ്പലങ്ങളും സന്യാസിമാരുടെ ഒരു താമസിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ അതുകൊണ്ട് അവിടേക്കൊന്ന് പോകണം എന്നും പോയിട്ട് ഇന്ത്യേൻ്റെ മനോഹര മനോഹാരിതകൾ ആസ്വദിക്കണം എന്നും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ട് അപ്പം ഈ അടുത്ത് തന്നെ പോകണം എന്ന് വിചാരിക്കുന്നു